ചെടികൾ വളർത്താൻ ഏത് തരത്തിലുള്ള മണ്ണാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനെൻ്റെ വീട്ടിലുള്ള മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന്റെകത്ത് കുറച്ച് ചാണകപ്പൊടി കുറച്ച് പൂഴി ചകിരിപ്പൊടി എല്ലാം കൂടെ മിക്സഡാക്കിയിട്ട് ചട്ടിയിൽ നിറക്കും എന്നിട്ട് അതിന്റകത്ത് ചെടി ഞാനതിൽ കുഴിച്ചിടും അത് പിന്നെ കുറെ രണ്ട് മൂന്ന് ദിവസം വെയിൽ കൊള്ളിക്കാണ്ട് അതിനെ ഒന്ന് ഉഷാറാകുന്ന വരെ വെയിൽ കൊള്ളിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെയോന്ന് ഉഷാറാക്കി കൊണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നെ ഞാൻ വീട്ടിൽത്തന്നെ ജൈവവളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ജൈവവളം വെയിലത്തെല്ലാം ഇട്ട് ഒണക്കി നല്ല ചാണകപ്പൊടി പോലെ ആക്കി അതാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ വേറെ വളമൊന്നും വാങ്ങി ഇടലൊന്നും ഇല്ല ഈ ജൈവ വളം തന്നെയാണ് ജൈവ വളം ഇടുന്നത്കൊണ്ടന്നെ നല്ല പൂക്കൾ നല്ല പൂക്കൾ കായ്ക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇലകളെല്ലാംന്ന് പറഞ്ഞാൽ പുഴുക്കളെല്ലാം അരിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ കീടനാശിനി അടിച്ച് കൊടുക്കും അല്ലാണ്ട് വേറല്ലന്നും ഇല്ല വേറല്ലോന്നും ചെയ്യാറില്ല ഇത് തന്നെയാന്ന് ജൈവ വളം തന്നെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുക ജൈവ വളത്തിൽ ഒരുപാട് പൂവുണ്ടാകുന്നുണ്ട് പിന്നെ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞ് കായ്ക്കും ഈ ജൈവ വളമിടുമ്പോൾ അപ്പോൾ അത് തന്നെ കൂടുതലുപയോഗിക്കുക നമ്മൾ പുറത്ത്ന്നുള്ള കെമിക്കലുള്ള ഇത് വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ വീട്ടിലെ കമ്പോസ്റ്റിൽ അപ്പം ഉള്ള ഉള്ളിത്തോൽ ഉള്ള പഴത്തോൽ അങ്ങനത്തേയുള്ള നനക്ക നനവില്ലാണ്ട് ഇടുക അത് നല്ല ഇതായി കറുത്ത നിറത്തിൽ നമ്മളത് വെയിലത്തിട്ട് ഒണക്കുക എന്നിട്ട് ചാണകപ്പൊടി പോലെ പൊടിച്ച് എന്നിട്ട് അത് നമ്മൾ ഇടയ്ക്ക് അതിന്റകത്ത്ന്ന് വരും പുല്ലെല്ലാം കളയുക അത് ചിള്ളി കൊടുക്കുക മണ്ണിൽ ചിള്ളി കൊടുത്ത് എന്നിട്ട് ഇതിടുക വളമിട്ട് കൊടുക്കുക പിന്നേ രാവിലേം വൈകുന്നേരോം നല്ലോണം വെള്ളം നനക്കുക അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ചെടിയെ പരിപാലിച്ച് കൊണ്ട് പോവുക നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെകൊണ്ട് നല്ല കാര്യമേ ഉണ്ടായിട്ടുള്ളൂ നല്ല പൂക്കൾ എൻ്റെ വീട് നിറച്ചും ചെടികളും പൂക്കളും ആണ്